ഹലോ ആരായിരുന്നു എവിടെ നിന്ന് വരുന്നു പലിശാ ആറ് ശതമാനം ഒമ്പത് ശതമാനം പന്ത്രണ്ട് ശതമാനം നാലു ശതമാനത്തിനാണെങ്കിൽ നികുതി ചീട്ട് നിങ്ങൾ വെക്കണം തോന്നുന്നു പവന് പവന് ഒരു പവന് ഇത്ര രൂപ വച്ച് ഒരു ഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറൊക്കെയേ കൊടുക്കുള്ളു

വേണ്ട നികുതി ചീട്ട് കൊണ്ടുവന്നാൽ മതി ആധാർ കാർഡ് നിങ്ങൾ ആൾറെഡി ബാങ്കിൽ അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ആധാർ കാർഡ് വേണ്ട നികുതി ചീട്ട് മതി ആൾറെഡി ബാങ്ക്

അക്കൗണ്ട് എടുക്കണമെങ്കിൽ ആധാർ കാർഡ് വേണം ഫോട്ടോ വേണം

നിങ്ങൾ ഇന്ന് വരണ്ട ഇന്ന് ഭയങ്കര തിരക്കാണ് ബാങ്കിൽ നാളെ ഒരു ഉച്ച ആവുമ്പോഴത്തേക്ക് വാ ആ എല്ലാ സംഗതികളും കൊണ്ടുവാ നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോയും നികുതി ചീട്ട് ആധാർ കാർഡ് ഒക്കെ കൊണ്ടുവാ